രാഷ്ട്രീയ സംഘർഷക്കാര് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് അറിയാൻ സാധിക്കില്ല പലപ്പോഴും അവര് വോട്ടിനുവേണ്ടിയിട്ട് ഈ മതപരമായിട്ടുള്ള മതത്തെ മുതലെടുത്തുകൊണ്ട് അവരുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അവര് പ്രവർത്തിക്കാറുണ്ട് പക്ഷേ അത് പലപ്പോഴും പിന്നീട് അതൊരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിപ്പെടാറുണ്ട് അതുപക്ഷേ അതവരറിഞ്ഞു കൊണ്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതുമായിട്ടു ബന്ധപ്പെട്ടവര്ക്കതറിയാന് സാധിക്കില്ല പക്ഷെ തലപ്പത്തിരിക്കുന്നവർക്ക് അവര് വോട്ടിന് എന്നുള്ള ഒരു പേരില് ഇവരെ കൈയിലെടുക്കുകയും അവർക്ക് പക്ഷേ വ്യക്തമായിട്ട് അറിയാന് സാധിക്കും ഇത് ഒരു അവസരത്തില് ഒരു സംഘർഷത്തില് എത്തിച്ചേരുമെന്നുള്ളത് അവര്ക്ക് അറിയാം പക്ഷെ അവര് പലപ്പഴും അത് ത കീഴ് കീഴ്ഘടകങ്ങളിലേക്ക് അറിയിക്കാതെ അവര് വോട്ടിനുവേണ്ടി ഇവരെ അവരുടെ കൈവശത്ത് എത്തിച്ചു കഴിയുമ്പോള് പലപ്പോഴും അതൊരു സംഘർഷ വേദിയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ശരിയായിട്ടുള്ള ഒരു കീഴ്വഴക്കമല്ല അത് മത മതത്തില് ഉള്ളവര് അത് മനസ്സിലാക്കേണ്ടി മനസ്സിലാക്കി പ്രവർത്തിച്ചാല് ഇത് ഉണ്ടാവൂല രാഷ്ട്രീയക്കാര് പലപ്പോഴും വോട്ടിന് വേണ്ടിവരും ഈ രാഷ്ട്രീയക്കാര് മതവും സമീപിക്കാറുണ്ട് പലകാര്യങ്ങള് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരപൂരകം ആയിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും പക്ഷെ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുന്നതിന് ഈ മതത്തെ മുതലാക്കുന്നുണ്ടെന്നുള്ളത് വസ്തുത നിലനിൽക്കുകയാണ് അത് ശരിയായിട്ടുള്ള ഒരു കീഴ്വഴക്കമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം